ഏതൊരു ഗായകനും പ്രധാനമായി വേണ്ട ഒരു കഴിവ് തന്നെയാണ് ശ്വസനം നിയന്ത്രിക്കുക എന്നുള്ളത് കാരണം ശ്വസനം ശ്വാസം എത്രത്തോളം പാട്ടുകളെയും ബാധിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ശ്വാസം വലിച്ച് പിടിച്ച് നമുക്കൊരിക്കലും പാടാൻ പറ്റത്തില്ല കാരണം നമ്മളെത്രത്തോളം നന്നായി പാടുന്നുവോ അത് നമ്മുടെ ശ്വാസത്തെ കൂടിയും കേന്ദ്രീകരിച്ചായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അത് കൊണ്ട് തന്നെ ശ്വാസം എത്രത്തോളം പാട്ട് നെ ഏറ്റവും പ്രധാനമായൊരു ഘടകം എന്നാ എന്നതാണ് ഇതിനെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പാട്ട് പാടുമ്പോളത്തേക്കും പ്രത്യേകം ശ്വാ ശ്വാസത്തെ നിയന്ത്രിച്ച് പാടുക എന്നുള്ളത് ഒരിക്കലും സ്വാധ്യ സാധ്യമാകാത്തൊരു സ ഘടകം തന്നെയാണ് കാരണം പാട്ട് പാടുമ്പോളത്തേക്കും നമുക്കെല്ലാവർക്കുമറിയാം ശ്വസനത്തെ നിയന്ത്രീകരിച്ച് നമുക്ക് നീ നമുക്ക് നിയന്ത്രീകരിച്ച് നമുക്കൊരിക്കലും പാടാൻ പറ്റത്തില്ല നമ്മൾ എപ്പോളും നന്നായിട്ട് ഫ്രീ ആയിട്ട് വേണം പാടാനായിട്ട് എന്നുള്ള ഒരു ഘടകം വളരെ ഇമ്പോർട്ടൻറ്റ് വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത് പാട്ടിനെ എത്രത്തോളം പിന്തുണയ്ക്കുന്നത് എന്നുള്ളതും ഇതിലൂടെ നമുക്ക് നമസ്സിലാക്കാൻ പറ്റും കാരണം ഒര് ഒരു വ്യക്തി പാടുമ്പോഴത്തേക്കും ആ ആളുടെ ശ്വസനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്നതിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മള് പറയാറുണ്ട് സാധകം ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പോളത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്നറിയത്തില്ല പക്ഷേ പക്ഷേ ഏറ്റവും കൂടുതലും പാട്ട് പാടുന്നവർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ പാട്ട് പാടുന്ന ശൈലി അതുപോലെ തന്നെ ശബ്ദം നല്ലതാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം